മറ്റ് ഭാഷകൾ സംസാരിക്കുന്നവരുമായി സംവദിക്കുക അങ്ങനെ പ്രത്യേകിച്ച് ആപ്പോ കാര്യങ്ങളോ സേവനങ്ങളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല മറ്റ് ഭാഷക്കാരോടെന്ന് വച്ചാല് കൂടുതലും ഞാൻ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനാണ് നോക്കാറ് ഇംഗ്ലീഷാകുമ്പോന്ന് വെച്ചാൽ ഏത് ഭാഷക്കാർക്കും പരിചയമുള്ളൊരു ലാംഗ്വേജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുവിധം എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാത്തവരോട് ഞാൻ അധികം സംസാരിക്കാൻ നിക്കാറില്ല എനിക്ക് അറിയാത്ത ഭാഷയാണേൽ ഞാൻ സംസാരിക്കാൻ നിക്കാറില്ല എങ്കിൽ കൂടിയും മറ്റുഭാഷകൾ സംവദിക്കാൻ ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് അത് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അത് എങ്ങനെയാണ് സൗകര്യപ്രദമാവുക എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സൗകര്യപ്രദമായേക്കാം കാരണമെന്ന് വെച്ചാല് അതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ആ ആപ്പുകളിലൂടെ സാധിക്കും നമുക്ക് നമ്മുടെ ഭാഷയില് അവര് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടീട്ട് ആ ആപ്പുകള് ചിലപ്പോൾ സഹായിക്കുവായിരിക്കും അങ്ങനെ നമുക്ക് ചിലപ്പോൾ ആ ഭാഷകള് പഠിക്കാൻ പറ്റി എന്ന് വരാം അപ്പം ഇങ്ങനെയുള്ള ആപ്പും കാര്യങ്ങളൊക്കെ ഒരുപാട് സൗകര്യം ചെയ്യുന്നുണ്ടാകാം പക്ഷേ ഞാൻ ഇത് വരെ ഉപയോഗിച്ചിട്ടില്ല എന്തായാലും ആ ഭാഷയില് സംസാരിക്കുന്നവരുമായി സംവദിക്കാൻ വേണ്ടിയിട്ട് തർജ്ജിമ ചെയ്യുന്ന ആപ്പുകളൊക്കെ ഒരുപാട് ഉപയോഗം സൗകര്യപ്രദം ആവും എന്നാണ് എൻ്റെ വിശ്വാസം കാരണമെന്നു വെച്ചാല് ആ ഭാഷ കൂടുതൽ പഠിക്കാനും ആ ഭാഷയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടും അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ആ ആപ്പുകള് കൂടുതൽ സഹായിക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം

മറ്റ് ഭാഷകള് സംസാരിക്കുന്നവരുമായി സംവദിക്കാൻ ഈ ആപ്പുകള് ഒരുപാട് സഹായകരമാകും എന്നാണ് എൻ്റെ വിശ്വാസം